വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നില്ലെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളെ അത് നമ്മുടെ താൽപര്യം അനുസരിച്ചുള്ളതാണ് പലപ്പോഴും തിരഞ്ഞെടുക്കുന്നത് നമ്മൾക്ക് ഇഷ്ടമുള്ള നിറങ്ങൾ പ്രത്യേകിച്ച് മെറൂൺ അതുപോലെയുള്ള ലൈറ്റ് കളറുകളൊക്കെയാണ് കൂടുതലും താല്പര്യമുള്ളത് അങ്ങനത്തെ കളറുകളൊക്കെയാണ് നമ്മൾ പലപ്പോഴും തിരഞ്ഞെടുക്കാറുള്ളത് ഈ തിരഞ്ഞെടുപ്പിൽ നമ്മളെ കൂടുതൽ സഹായിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വീട്ടിലുള്ളവർ തന്നെയാണ് ജീവിത പങ്കാളികളുടെയും മറ്റു മക്കളുടെയും ഒക്കെ അഭിപ്രായങ്ങളാണ് പലപ്പോഴും നമ്മളത് തിരഞ്ഞെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അവരുടെ കൂടി നിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ പലപ്പോഴും വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ ഫാഷൻ തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ സ്റ്റിച്ചിങ്ങ് രീതി തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ നിറം തിരഞ്ഞെടുക്കുന്നത് അതുപോലുള്ള കാര്യങ്ങളെല്ലാം അവരുടെ കൂടെ താല്പര്യം അനുസരിച്ചിട്ടാണ് കിട്ടുന്നത് നമ്മൾ ഒരുപക്ഷെ നമ്മൾക്കൊക്കെ കൂടുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ മക്കൾക്കോ ഒക്കെ ആയിരിക്കും ആ കൂടുതൽ കൂടുതൽ അതിനകത്ത് കൂടുതൽ അറിയുന്നത് കാരണം എന്താണെന്നു വച്ചാൽ അവർ ആ സമയത്തെ അതാത് സമയത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ ആ നല്ല രീതിയിലുള്ള ഫാഷനെ നിലവിലുള്ള പിന്നെ മറ്റും ആധുനികമായ ചിന്താരീതികൾ ഇതൊക്കെ അനുസരിച്ചാണ് അവരെപ്പോഴും വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അവരുടെ സഹായം കൂടി നമുക്ക് ഞങ്ങൾ നമ്മൾ അതിനകത്ത് പലപ്പോഴും ഉൾക്കൊള്ളിക്കാറുണ്ട് അങ്ങനെ വീട്ടിലുള്ള മറ്റുള്ളവരുടെയും കൂടി സഹായത്താലാണ് പലപ്പോഴും നമ്മൾ ഈ വസ്ത്രങ്ങളുടെയൊക്കെ തിരഞ്ഞെടുപ്പും ഡിസൈനും ഒക്കെ തീരുമാനിക്കുന്നത് പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും നമ്മളെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള വസ്ത്രങ്ങൾ കൂടിയാണ് നമ്മൾ പലപ്പോഴും ഓരോ സമയത്തും പ്രാധാന്യം കൊടുക്കുന്നത് അത് നമ്മളെ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മളെ ബന്ധുക്കൾ മറ്റുള്ളവരുപയോഗിക്കുന്ന വസ്ത്ര അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന വസ്ത്രങ്ങൾ കാണുമ്പോഴെ അതിൻ്റെ നന്മയും അതിൻ്റെ മേന്മയും ഗുണവും ദോഷവുമൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കൂടി അഭിപ്രായത്തിൽ നമ്മൾ പലപ്പോഴും അത് അങ്ങനെയുള്ളതെല്ലാം നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഈവക കാര്യങ്ങളിൽ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ വീട്ടുകാർ തന്നെയാണ് നമ്മുടെ വീട്ടിൽ കുടുംബത്തിലുള്ളവർ തന്നെയാണ് നമ്മുടെ ബന്ധുക്കൾ തന്നെയാണ് പിന്നെ സുഹൃത്തക്കൾക്കും അതിനകത്ത് നല്ല ആ ഒരു പങ്കുണ്ട് സുഹൃത്തുക്കളൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ സമപ്രായക്കാരൊക്കെ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന നിറങ്ങളുമൊക്കെ കാണുമ്പോൾ ആ അതു കൊള്ളാം അല്ലെങ്കിൽ അത് കൊള്ളത്തില്ല അത് നല്ലതായ അത് അത്ര ശരിയായില്ല എന്നുള്ളത് നമുക്ക് തോന്നുമ്പം നമ്മളെ നമ്മുടെ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പം ആ ചിന്ത ആ അത് നമ്മളെ സ്വാധീനിക്കും ആ സ്വാധീനത്തിലൂടെ നമ്മൾ കുറച്ചു കൂടി മെച്ചമായിട്ട് നല്ല വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാനും എല്ലാം നല്ല ഡിസൈനുകൾ തിരഞ്ഞെടുക്കാനും നല്ല പാറ്റേണുകൾ കണ്ടെത്തുവാനുമൊക്കെ നമ്മളെ അത് സഹായിക്കാറുണ്ട് പിന്നെ ചില ചില കമ്പനികളുടെ വസ്ത്രങ്ങൾ കുറച്ച് മെച്ചമായിരിക്കുമെന്ന് പൊതുവെ ധാരണയുണ്ട് അതുകൊണ്ട് അത് കമ്പനി സാധനങ്ങളെ നമ്മൾ കൂടുതലായിട്ട് കണ്ട് പിന്നെ കണ്ടുപിടിക്കാനും ആ കമ്പനിയുടെ ആരെങ്കിലുമൊക്കെ ആ കടക്കാരുടെ സാധനങ്ങൾ കൂടുതലായിട്ട് വാങ്ങിക്കാൻ നമ്മൾ ശ്രമിക്കും അതിലൂടെ നമുക്ക് കുറച്ചൂകൂടി മെച്ചമായിട്ടുള്ള നല്ല സാധനങ്ങൾ ലഭിക്കും ആ അങ്ങനെ നമുക്ക് നമ്മുടെ വസ്ത്രത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ നമുക്ക് സഹായിക്കും